ആ ഹലോ നിങ്ങൾ ഷോപ്പിൽ ഏതൊക്കെ ടൈപ്പ് ചായകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കേ ഇതിന്റെ ഓരോന്നിൻ്റെയും റേറ്റ് എങ്ങനെയാണ് ഓക്കേ നിങ്ങളുടെ മാത്രമായിട്ട് സ്പെഷ്യൽ ടീ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സാധാരണ ഹോട്ടൽ നടത്തുന്ന ആൾക്കാർക്കുള്ളത് പോലെ നിങ്ങളുടെ സ്പെഷ്യൽ ഫ്ലേവർ ആണോ അതിന് യൂസ് ചെയ്യുന്നത് ഓ അത് മാത്രമാണ് നിങ്ങളുടെ സ്പെഷ്യൽ ഫ്ലേവർ ഓക്കേ ഏറ്റവും കൂടുതൽ പോയിക്കോണ്ടിരിക്കുന്ന ചായ ഏതാണ് അതിൽ ഓക്കേ അപ്പം നമ്മൾ ഓർഡർ ചെയ്താൽ എത്ര സമയത്തിനുള്ളിൽ കിട്ടും ഇത് ഇത് ഓൺലൈൻ ആയിട്ട് ചെയ്യാനാണെങ്കിൽ ഷോപ്പിൽ നിന്ന് പാഴ്സൽ ചെയ്ത് തരും അപ്പം ഇതിന് എത്ര ഡെലിവറി ചാർജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ

ഓക്കേ ഓക്കേ അപ്പോൾ ഞാൻ ഷോപ്പിലേക്ക് നേരിട്ട് വരാം എന്നാൽ ഓക്കേ താങ്ക് യൂ